ഹലോ ഹലോ ഞാനേ വയനാട്ടിൽ നിന്ന് വിളിക്കുന്നതായിരുന്നു എനിക്കൊന്ന് വയനാടിൽ നിന്ന് മൂന്നാറിലേക്ക് ട്രിപ്പ് പോവാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവർ ആ ഒരു സെവൻ സീറ്റർ വണ്ടിയാണ് വേണ്ടത് നല്ലൊരു ഡ്രൈവർ വേണം ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ആ ടൈമിലേക്ക് ആവുമ്പം നല്ലൊരു വണ്ടി എനിക്ക് വേണം അതായത് ഇങ്ങനെ എന്താണ് പറയുക ആക്സിഡൻറ്റ് ആയ വണ്ടികൾ പിന്നെ വണ്ടി വൃത്തിഹീനമായിട്ടുള്ള വണ്ടികൾ ഒന്നും എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ പറഞ്ഞില്ല എന്ന് വേണ്ട ആ അപ്പം ദേ ഞാൻ ആദ്യം ഒരു ഇങ്ങനെ ക്യാബിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു യാത്ര അപ്പം അത് വളരെ മോശമായിട്ട് ഉള്ള ഒരു വണ്ടിയും ഒരു ഡ്രൈവറും ആയിരുന്നു അതുകൊണ്ട് ആണ് ഞാൻ ഇപ്പം മുൻകൂട്ടി പറഞ്ഞത് നല്ലൊരു സെവൻ സീറ്റർ ഉള്ളത് ഒരു ഇന്നോവ മതി ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഒരു ഇന്നോവ മതി എനിക്ക് ആ ക്രിസ്റ്റ മതി പിന്നെ ആ പിന്നെ ഞങ്ങൾ പോവുന്ന വഴിക്ക് പല സ്ഥലങ്ങളിലും നിർത്താനൊക്കെ പറയും അപ്പം അത് നിങ്ങൾക്കൊരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒന്നും ഇല്ലല്ലോ ആ ഓക്കെ ഇല്ലല്ലേ ഞാൻ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോഴും ഇതേപോലെ തന്നെയാണ് നിർത്തി കഴിഞ്ഞപ്പം അവർക്ക് ഭയങ്കര പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അതാണ് ഞാൻ പിന്നെ ആളെ ആ മറ്റേ അവരെ വിളിക്കാണ്ട് നിങ്ങളെ വിളിച്ചത് അതുകൊണ്ടാണ് ആണല്ലേ ഓക്കെ ഓക്കെ അങ്ങനെ ആ അങ്ങനെ ആണെങ്കിൽ ഞാൻ മറ്റന്നാൾ വരും ആ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് കാര്യങ്ങൾ ഒക്കെ ചെയ്യണോ ഇപ്പം ഒന്നും വേണ്ട നമ്മൾ എല്ലാ ട്രിപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കണക്ക് കൂട്ടി ഇട്ട് ഇട്ട് കഴിഞ്ഞിട്ടല്ലേ ഓക്കെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ ഞാൻ അങ്ങനെ ചെയ്യാം പിന്നെ ഇപ്പോൾ ഇന്നോവയിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്റ്റ അല്ലേ അപ്പോൾ അതിന് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഉള്ളത്

ഏ ആ ഓക്കെ ഓക്കെ നിങ്ങൾ ഇപ്പോൾ വണ്ടിയിലാണോ കിടക്കുന്നത് അതോ നമ്മൾ ഇവിടെ റൂം കാര്യങ്ങളൊക്കെ വയ്ക്കണോ നമ്മള റൂം തന്നെയാണ് നോക്കുന്നത് ഓക്കെ ഓക്കെ ആ അത് അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ് അങ്ങനെ ആണെങ്കിൽ ഞാൻ മറ്റന്നാൾ കോൺടാക്ട് ചെയ്യാം എന്നാൽ ഓക്കെ എന്നാൽ